കഴിഞ്ഞ വർഷങ്ങളുടെ വിനോദങ്ങളും ഇപ്പം നടക്കുന്ന വിനോദങ്ങളും വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് പണ്ട് കൂട്ടത്തോടെ ചേർന്ന് കളിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാവരും നാലഞ്ച് മൊബൈൽ സ്ക്രീനിൻ്റെ ഉള്ളിൽ കുടുങ്ങി അവരവരുടേതായ കീപ്പ് ചെയ്യുക പക്ഷെ പണ്ടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവരുമൊരുമിച്ച് പാടങ്ങളിലും വയലുകളിലുമെല്ലാം കളിച്ച് കളിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പറയുവാണെങ്കില് എല്ലാരും ഫോണിലും പിന്നെ കളിയ്ക്കാൻ പുറത്തിറങ്ങാതെ വീടിനകത്ത് തന്നെ കളിക്കും എല്ലാവരും പക്ഷെ ഇത് നല്ല നല്ലൊരു അഭിപ്രായമായി എനിക്ക് തോന്നുന്നില്ല